കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരുപാട് റീസൺസ് ഉണ്ട് അതിൽ ഒരുപാട് പ്രധാനപ്പെട്ട റീസൺസ് ഉണ്ട് അതിൽ ഫസ്റ്റ് റീസൺ ആയിട്ട് വരുന്നതാണ് വനനശീകരണമെന്ന് പറയുന്നത് വനനശീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആളുകൾ ഒരുപാട് ഫാക്ടറീസ് അതുപോലെ തന്നെ വീടുകൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയും വനങ്ങളൊക്കെ നശിപ്പിച്ചു കളയുന്നതിനാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഡിഫോറെസ്റ്റേഷൻ മൂലം പ്രധാനമായിട്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിക്കും ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിക്കുന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് മൃഗങ്ങളൊന്നും നമ്മുടെ ഭൂമിയിൽ തന്നെയില്ല അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയ് സോറി വനനശീകരണം എന്ന് പറയുന്നത് വനങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ ജീവജാലങ്ങൾക്കൊന്നും അവരുടെ താമസ സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ നശിച്ചുപോകുന്നു അതുപോലെതന്നെ മഴ കിട്ടുന്നില്ല ചൂട് കൂടുന്നു ഇതൊക്കെ പ്രധാനമായിട്ടും വനനശീകരണത്തിൻ്റെ വന വനനശീകരണത്തിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് അതിൻ്റെ പ്രതിവിധികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക അതുപോലെതന്നെ വനങ്ങൾ സംരക്ഷിക്കുക അതിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ വനനശീകരണം മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ആണ് അന്തരീക്ഷമലിനീകരണമെന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് വാഹനങ്ങളുടെ ഉപയോഗം അതുപോലെതന്നെ പ്ലാസ്റ്റിക്കുകൾ ഒക്കെ കത്തിക്കുക അതുപോലെ തന്നെ എ സി ഫ്രിഡ്ജ് തുടങ്ങിയതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ പുറത്തുവിടുന്ന ക്ലോറോഫ്ലൂറോകാർബൻസ് അതുപോലെ തന്നെ ഫാക്ടറി മാലിന്യങ്ങൾ പുറത്തുവിടുന്നത് ഇതൊക്കെ പ്രധാനമായിട്ടും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ റീസൺസ് ആണ് അന്തരീക്ഷ മലിനീകരണം കൂടുതൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നതാണ് ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്നതിലൂടെ കൂടുതലായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് എത്തുകയും അതിലൂടെ ചൂടുകൂടും ചൂടുകൂടും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് പൊള്ളൽ ഒരുപാട് തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടാവും ജലക്ഷാമം ഉണ്ടാവും കൃഷിനാശം ഉണ്ടാവും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അന്തരീക്ഷ മലിനീകരണത്തിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങളെന്ന് പറയുന്നത് അന്തരീക്ഷം മലിനീകരണം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് നമുക്ക് പ്ലാസ്റ്റിക്ക് ഒക്കെ റീസൈക്ലിങ് ചെയ്യാം അതുപോലെതന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാം കൂടുതലായിട്ട് മരങ്ങളൊക്കെ നട്ടു പിടിപ്പിക്കാം അതുപോലെതന്നെ മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇന്ധനം കത്തിച്ച് അതിൻ്റെ ഒരുപാട് അന്തരീക്ഷ അതിലൂടെ നമുക്ക് ഒരുപാട് അന്തരീക്ഷ മലിനീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ഇൻഡ്യുവി ഇൻഡ്യുവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം കൂടുതലായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുക അതൊക്കെയാണ് പ്രധാനമായിട്ട് അന്തരീക്ഷ മലിനീകരണത്തിനുള്ള ദോഷങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ ഒരുപാട് ഒരുപാട് വിധത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതിലൊന്നാണ് വെള്ളപ്പൊക്കം അതുപോലെ തന്നെ കഠിനമായ ചൂട് മഴ ലഭിക്കാതിരിക്കുന്നത് ഉരുൾപൊട്ടൽ ജലക്ഷാമം കൃഷിനാശം കാട്ടുതീ ഇതിനൊക്കെ നമുക്ക് ഉള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫ്സ്റ്റൈൽ തന്നെയാണ് ജീ ജീവിത രീതിയിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് മഴ ഒക്കെ കിട്ടുമായിരുന്നു കറക്റ്റ് സമയത്ത് വെയിൽ വരുമായിരുന്നു നമുക്ക് എല്ലാത്തിനും ഓരോ സീസൺസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നാണെങ്കിൽ മഴയൊന്നും പെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ അല്ല മഴ ശരിക്കും കിട്ടില്ല ചില സമയത്ത് വളരെ കൂടുതലായിട്ട് മഴ കിട്ടും അങ്ങനെയാണ് നമുക്ക് വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിലൂടെ ഒരുപാട് പേർ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരുപാട് പേർ കഷ്ടപ്പെട്ട് അത് മൂലം ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതൊക്കെ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വ്യതിയാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഇതാണ് അതുപോലെതന്നെ ഉരുൾപൊട്ടൽ മല ഉള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാവും അത് മഴ പെയ്യുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് മഴ പെയ്യുന്നതിലൂടെ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാവും അതും ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു റീസൺ ആണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ ചൂട് ഈ ചൂടും ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു വ്യതിയാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഇന്ന് സൂര്യാഘാതം പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പൊള്ളൽ ഒക്കെ ഏൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജലക്ഷാമം പല സ്ഥലങ്ങളിലും വെളളമൊന്നുമില്ല കെ കിണറിലെ ഒക്കെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് അതും ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതിവിധികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒക്കെ കുറയ്ക്കണം പിന്നെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം അതുപോലെതന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം അതിലൂടെ ഇന്ധനങ്ങളിൽ നിന്നുള്ള പൊലൂഷൻസ് ഒക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഫാക്ടറികളിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കണം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ ഒക്കെ ഒരുപാട് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും